ഞങ്ങളുടെ നാട്ടിൽ വിനോദ സഞ്ചാരികൾ നേരിടുന്ന വലിയ ഒരു പ്രശ്നമാണ് താമസം അവിടെ താമസിക്കാൻ ടൂറിസ്റ്റ് പ്ലേസുകളോ അല്ലെങ്കിൽ അവർക്കായിട്ട് താമസിക്കാൻ വേണ്ടി ഒന്നും ഇല്ല ഒരു ടൂറിസ്റ്റ് കോട്ടേജ് അല്ലെങ്കിൽ ഡോർമെട്രി അങ്ങനെ ഒരു സഞ്ചാരികൾക്ക് വേണ്ടുന്ന ഒന്നും ഇല്ല പിന്നെ കൂടെ ഉള്ളതാണ് ഗതാഗതം ഗതാഗതം വളരെ അധികം ദുഷ്ക്കരമാണ് കാരണം ബസ്സ് ബസ് ബസ് റൂട്ട് കുറവാണ് നമുക്ക് പ്രൈവറ്റ് വണ്ടികളാണെങ്കിലും പ്രൈവറ്റ് വണ്ടികൾ ഈ വീടുകളിൽ പ്രൈവറ്റ് വണ്ടികൾ കുറവാണ് അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ബൈക്കുള്ള ആൾ അല്ലെങ്കിൽ ടു വീലേഴ്സുള്ള ആൾ അയാളെ പോയി കൂട്ടിയിട്ട് വരാൻ അല്ലെങ്കിൽ ആ രണ്ട് മൂന്ന് നാല് പേരെ കൂട്ടിയിട്ട് വരാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് അതിനാൽ തന്നെ ഗതാഗതം ഗതാഗതവും താമസവുമാണ് ഭയങ്കരമായിട്ടും വെല്ലു വിളിക്കുന്ന ചില കാര്യങ്ങൾ പിന്നെ ഉള്ളത് ഇപ്പോൾ ഭക്ഷണം ഭക്ഷണം അവിടെ ലഭ്യമാണ് ഒരു കുഴപ്പവും ഇല്ല വളരെ അധികം ആവശ്യത്തിലേറെ ഭക്ഷണം കിട്ടും പിന്നെ കാലാവസ്ഥ കാലാവസ്ഥ നമ്മൾക്ക് മഴയാണെങ്കിൽ വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും യാത്ര ചെയ്യാൻ കാരണം ഗതാഗതം തടസപ്പെടും മണ്ണിടിച്ചിൽ ഉരുൾ പൊട്ടൽ പോലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഉരുൾ പൊട്ടൽ പോലെ ഉള്ള കാര്യങ്ങൾ നടക്കുന്നതിലൂടെ ഗതാഗതം തടസപ്പെടും കൂടെ പിന്നെ വെയിലാണെങ്കിൽ വെയിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഐ മീൻ വെയിലൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ മഴയത്താണെങ്കിൽ കാലാവസ്ഥ അവിടെയാണ് പ്രശ്നം വരുന്നത് ഗതാഗതം തടസ്സപ്പെടുന്നതാണ് പിന്നെ യാത്ര ചെയ്യാനും വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും അത് ഇതാണ് ആ വിനോദ സഞ്ചാരികളെ വെല്ലു വിളിക്കുന്ന കാര്യങ്ങൾ